എൻ്റെ രണ്ടാമത്തെ പ്രോഡക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ്ഫോൺ ആണ് ഹെഡ്ഫോണിനെക്കുറിച്ച് പറയാൻ ആണെങ്കിൽ ഒരുപാടുണ്ട് കാരണം എന്തെന്ന് വച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഹെഡ്ഫോണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വച്ച് കഴിഞ്ഞാൽ നമ്മൾ അതായത് നമ്മൾക്ക് ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഹെഡ്ഫോൺ ഉപയോഗിക്കുന്നത് ഇപ്പോൾ മൊബൈലിലൂടെ നമ്മൾ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെയുണ്ട് ഇപ്പോൾ ഹെഡ്ഫോണ് പല രീതിയിലുള്ള ഹെഡ്ഫോണ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ മെയിൻ ആയിട്ട് നമ്മുടെ ചെവിയിൽ വച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെവി കേൾക്കാണ്ടായി വരിക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് ഉണ്ടാകുക എന്ന് ആണെങ്കിൽ പറയാൻ പറ്റും കാരണം ഓരോന്നിനും ഓരോ കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നമുക്ക് റേഡിയേഷനും കാര്യങ്ങളൊക്കെ അനുഭവിക്കുക അങ്ങനത്തെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഈ ഹെഡ്ഫോണിന് ഉണ്ട് ഹെഡ്ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് ഭയങ്കര രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളുമുണ്ട് ഈ ഹെഡ്ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് വഴിയാണ് കണക്ട് ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ വയേർഡ് ആയിട്ടുള്ള ഹെഡ്ഫോൺ ഉണ്ട് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വയേർഡ് ആയിട്ടുള്ള ഹെഡ്ഫോൺ ആണെങ്കിൽ നമ്മൾക്ക് എവിടെയും ദൂരേയ്ക്ക് ഫോൺ എടുത്ത് കൊണ്ടുപോകാൻ അങ്ങനത്തെ ഒന്നും കഴിയില്ല അപ്പോൾ അതൊക്കെ മെയിൻ മെയിൻ ആയിട്ടുള്ളൊരു ഡിസഡ്വാൻ്റേജാണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളാലും ചിലപ്പോൾ നമുക്ക് ഈ ഹെഡ്ഫോണുകൾ ഉണ്ടാകുക ഇപ്പം ഈ അതായത് വയർലെസ്സ് ആയിട്ടുള്ള ഹെഡ്ഫോണും കാര്യങ്ങളൊക്കെയാണെങ്കിൽ ഇപ്പോൾ ഇയർബഡ് കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട് അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അതിനകത്ത് നിന്നൊക്കെ ചാടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ അത്രയും പൈസ കൊടുത്ത് വാങ്ങിയ സാധനം പോയിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഇതിന് ഉണ്ടാകും